ആ ഷൈനിദേവ് ടീച്ചറാണോ ആ ഞാൻ ടീച്ചര്ന്റൊരു സ്റ്റുഡൻറ്റാണ് എനിക്ക് ഒരു സഹായം വേണമായിരുന്നു പേര് ബിന്ദുലേഖ ബിന്ദുലേഖ ഞാന് എയ്റ്റ്ത്തില് പഠിക്കുന്നൊരു കുട്ടിയാണ് എനിക്ക് ഒരു ആ എനിക്ക് സ്കൂളില് ഞാന് വേറൊരു സ്കൂളിലാണു പഠിക്കുന്നത് എനിക്ക് ആ ഒരു ടെക്സ്റ്റ് വേണമായിരുന്നു ചെമ്മീൻ തകഴിയുടെ ചെമ്മീനെന്ന ടെക്സ്റ്റാണ് പക്ഷേ എനിക്കത് എൻ്റെ സ്കൂളില് ഇല്ല അപ്പോള് ടീച്ചറെനിക്കൊന്നെന്നെ സഹായിച്ച് ആ എടുക്കാനായിട്ട് സഹായിക്കുമോന്നുള്ളതാണ് എനിക്ക് അതിനെ കുറിച്ചൊരു ഇത് തകഴിയെ കുറിച്ച് എഴുതാനും ആ നോവലിനെ കുറിച്ചെഴുതാനൊക്കെയാണ് എടുത്തേ ആ നോവല് ആ ആ ഉണ്ട് അതാ നോവല് പിന്നെ മ്മ് നോവലൊക്കെ വായിക്കുന്നത് ഇഷ്ടമാണ് പക്ഷേ ചെമ്മീൻ തകഴിയുടെ ചെ ചെമ്മീനാവുമ്പോഴ് ഒത്തിരി അവാർഡുകളൊക്കെ സ്വർണ്ണ മെഡലൊക്കെ നേടിയ ഒരു കൃതിയാണ് സിനിമ ഇറങ്ങിയിട്ടുണ്ടല്ലോ സ്വർണ്ണത്തോടൊത്തിരി ഇഷ്ടമല്ല സിനിമയൊക്കെ ആക്കിയ ഒരു നോവലാണ് അപ്പോള് അതിനെ കുറിച്ചൊത്തിരി ഒരൂ ആ ആ അതെ ആ ടീച്ചര് എൻ്റെ ടീച്ചറാണെങ്കില് മൊത്തം അതിനെ കുറിച്ചൊരു എന്തുവാ ഒരു ആ പഠിക്കാൻ നല്ല അല്ലേ പഠിക്കാൻ പഠിക്കാനില്ല പക്ഷെ ഒരു ഏത് മലയാള ഇല്ല മലയാളത്തിലെ പ്രശസ്തമായൊരു കൃതി എടുത്ത് ഒരു അവലോകനം എഴുതാനായിട്ട് പറഞ്ഞിട്ടുണ്ടേ ആ അപ്പോള് എനിക്ക് എന്തോ ആ ആ പോകാറുണ്ട് പക്ഷേ എനിക്കവിടെ അത് ആ കൃതി ആരോ കൊണ്ടുപോയി അപ്പോള് എനിക്കത് കിട്ടാനെനിക്ക് പാടാണ് അതോണ്ട് ടീച്ചറിൻ്റെ സ്കൂളില് ആ ടീച്ചറിൻ്റെ സ്കൂളിലെ ലൈബ്രറിയിലുണ്ടോ എന്നറിയാനായിരുന്നു ഉണ്ടോ ടീച്ചറേ ആ ആ ആ ആ ആ ആ അതെ അതെ ആ ആ അപ്പോള് ആ അപ്പോള് എനിക്ക് ആ ഈ കൃതി മാത്രമല്ല തകഴിയുടെ മറ്റു കഥ കൃതികളൊക്കുണ്ടോ അത് നമുക്കറിയണമെങ്കില് നമ്മളവിടെ വരണമല്ലേ ആ ആ ആ ആ എനിക്കറിയാം എല്ലാ നോവലുകളും കാണുമെന്നുള്ളതറിയാം അതുകൊണ്ടാണ് ഞാൻ ടീച്ചറിൻ്റടുത്ത് ചോദിച്ചത്

ആ അതെ അതെ ആ അതെ അതെ ആ എനിക്ക് മലയാളം ഇഷ്ടമാണ് അപ്പോള് അതിലുള്ള കൃതികള് ആ കഥകളാന്നേലും കവിതകളാണേലും എനിക്കിഷ്ടമാണ് പക്ഷേ ചെമ്മീൻ്റെ ചെമ്മീനെന്ന കഥാപാത്രങ്ങളെ കുറിച്ചുള്ള ഒരു വിശദീകരണം എഴുതാനും തകഴിയെ കുറിച്ചെഴുതാനും ഒക്കെയാണേ നമ്മള്ക്ക് ചെമ്മീൻ സിനിമ കണ്ടിട്ടില്ല ടീച്ചറേ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല പഴയ സിനിമകളൊന്നും കണ്ടിട്ടില്ല ഏ അതെ അതെ ആ അതെ ആണ് ആ

ആ എൻ്റെ ആ നമ്പറാ നമ്പര് എൻ്റെ അമ്മയുടെ നമ്പറാണ് ഇത് ഇതില് വിളിച്ചാല് കിട്ടും ആ ഫോണ് അമ്മേടേല് മ്മ് ഹ്മ്മ് മ്മ് ആ ഓക്കെ ടീച്ചറേ താങ്ക്യൂ താങ്ക്യൂ മ്മ് ഓക്കെ ഓക്കെ മ്മ്